ഒരു നീണ്ട ബൈക്കിങ്ങ് യാത്ര പോകുമ്പോൾ അതിനായ കുറേ കാര്യങ്ങൾ പ്രിപ്പയറുകൾ ചെയ്യാനുണ്ട് ആദ്യം ഒറ്റക്ക് പോകാൻ താത്പര്യമില്ലാത്തവർ ഫ്രണ്ട്സിനൊ ഫാമിലിയോ കൂട്ടും കൂടുതലും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടാണ് ബൈക്കിങ്ങ് കറ പോകുക ട്രിപ്പ് പോകുക ആദ്യം പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം ആദ്യം അതിൽ വണ്ടിയിൽ എണ്ണ എടുക്കുന്നത് നോക്കണം അതുപോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻസ് നോക്കണം പിന്നെ നമ്മുടെ ഹെ നമ്മുടെ ഹെൽത്ത് ഓക്കേയാണോ എന്ന് നോക്കണം ഇതൊ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നേ നമുക്ക് ചിലവാക്കാൻ ക്യാഷ് ഉണ്ടോയെന്ന് നോക്കണം ഇതാണ് ആദ്യ ചെയ്യേണ്ടത് പിന്നെ ഒരു നീണ്ട ബൈക്കിങ്ങ് യാത്രക്ക് തയ്യാറെടുക്കുന്നതിന് നിരവധി ഘട്ടങ്ങൾ ഉൾ ഉൾകൊള്ളുന്നു നിങ്ങൾ പാക്ക് ചെയ്യാനാഗ്രഹിക്കുന്ന സപ്ലൈയുടെ ഒരു ലിസ്റ്റ് ഇടുക ആദ്യം ആദ്യം നമ്മൾ ഇപ്പം പാക്കിങ്ങ് കേസ് കിടക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു യാത്രക്ക് വേണ്ടി പാക്ക് ചെയ്യുമ്പോൾ ആദ്യം എന്തൊക്കെ സാധനം എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റിടുക ആദ്യം വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ അതിൻറ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട് ഈർപ്പം പ്രതിരോധിക്കുന്ന അടിസ്ഥാന പാളികൾ സൈക്ലിങ്ങ് ഷോർട്സ് ജേഴ്സികൾ കാറ്റ് പ്രൂഫ് ജാക്കറ്റ് കയറുകൾ ഹെൽമറ്റ് എന്നിവ ഉൾപ്പടെ കാലാവസ്ഥക്ക് അനുയോജ്യകരമായ വസ്ത്രങ്ങൾ ആകണം കൊണ്ട് പോകേണ്ടത് എന്നു വെച്ചാൽ ഇപ്പം നമ്മളീ തണുപ്പത്ത് ഇടേണ്ട ഡ്രെസ്സുകളും അതുപോലെ തന്നെ കയ്യുമ്മെ ഇടുന്ന ഗ്ലൗവ്വ് സ്പെക്സ് ഹെൽമറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം വസ്ത്രങ്ങളതിൽ ഉൾപ്പെടുത്തി നമ്മൾ ഹെൽത്തിന് ഒരു ഒരു കേടും വരാത്ത രീതിയിൽ നമ്മളെന്തു ചെയ്യും അങ്ങനത്തെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യണം രണ്ടാമത്തത് ജലാംശം സവാരിക്കിടയിൽ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളമോ ഒരു ഹൈഡ്രേഷൻ പാക്കോ കരുതുക ഇപ്പം യാത്ര ചെയ്യുമ്പം നമ്മൾ ദാഹിക്കുകയൊക്കെ ചെയ്യും അപ്പം അതിൻറ്റേതായ കുപ്പിയിൽ വെള്ളം വെള്ളം പാക്ക് ചെയ്യും അതുപോലെ അങ്ങനത്തെ നിരവധി ഹൈഡ്രേ ഹൈഡ്രേഷൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം മൂന്നാമത്തേത് തന്നെ പോഷകാഹാരം ഫുഡ് ഭക്ഷണം നിർബന്ധമാണ് എനർജി ബാഗുകൾ ജൽസ് അണ്ടിപ്പരിപ്പ് ഉണക്കിയ പഴങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഊർജ്ജം നൽകുന്ന ഏതെങ്കിലും ലഘുഭക്ഷണങ്ങൾ കൊണ്ട് വരിക എന്നുവെച്ചാൽ ചെറിയതായിട്ടിപ്പം ഈ പഴങ്ങൾ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എനർജി കൂടിയ സാധനങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് പിന്നെ നാവിഗേഷൻ നാവിഗേഷനെന്ന് വെച്ചാൽ മാപ്പ് നമുക്ക് പോകുന്ന വഴി കാണിച്ച് തരാനുള്ള ഒരു ഇപ്പോൾ മാപ്പ് ജി പി എസ് ഉപകരണം അല്ലെങ്കിൽ നാവിഗേഷൻ ആപ്പുകളുള്ള സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺസിൽ ഇങ്ങനത്തെ നിരവധി ജി പി എസ് മാപ്പ് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് പോകാനുള്ള വഴികൾ കണ്ടെത്തണം ഒരിക്കലും സ്വയം റിസ്ക്കിൽ പോകരുത് മാപ്പ് പറയുന്നത് പോലെ പോകണം അടുത്തത് പ്രഥമ ശുശ്രൂ ശുശ്രൂഷ കിറ്റ് ബാൻഡേജുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിനെന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ കിറ്റ് പോലത്തതെന്തെങ്കിലും കരുതുക ഇപ്പോൾ ബാൻഡേജുകൾ ആൻറ്റിസെപ്റ്റിക്ക് വയ് വൈപ്പുകൾ വേദന സംഹാരികൾ എന്തെങ്കിലും വ്യക്തി വ്യക്തിഗത മരുന്നുകൾ ഇപ്പം പനി പെട്ടെന്ന് പനി വരികയാണെങ്കിൽ പനിക്കുള്ള പാനഡോളുകൾ കയ്യിൽ വെച്ചു കൊണ്ട് ചുമക്കുള്ള മരുന്ന് കരുതുക ഇപ്പം തണുപ്പ് അടിക്കുന്നതല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും അപകടം പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൻഡേജ് അതിൻ്റെയുള്ളിൽ ചുറ്റാനുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതുക അങ്ങനത്തെ നിരവധി മെഡിസിൻസും കാര്യങ്ങളും കയ്യിലെപ്പോഴും മെഡിക്കൽ കിറ്റ് പോലെ എന്താ കയ്യിൽ കരുതുക പിന്നെ എമർജൻസി സപ്ലൈസ് വിസ് വിസിൽ എമർജൻസി ബ്ലാങ്കെറ്റ് ഫ്ലാഷ് ലൈറ്റ് ഒരു ചെറിയ മൾട്ടി പർപ്പസ് കത്തി ഇപ്പം നമ്മൾ എന്താ പറയുക എമർജൻസി ബ്ലാങ്കെറ്റ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ കുറച്ച് സാധനം സൂര്യനിൽ നിന്നുള്ള സംരക്ഷണം സൺ സ്ക്രീൻ സൺ ഗ്ലാസ് ഒരു തൊപ്പി അല്ലങ്കിൽ തൊപ്പി എന്ന് വെച്ചാലിപ്പോൾ ഉച്ചസമയത്ത് എങ്ങനെ പോയാലും തണുപ്പാവില്ല വെയിലൊക്കെ ആ സമയത്ത് ട്രിപ്പ് പോകുമ്പം ഉണ്ടാകും അപ്പം നമ്മൾ സൺ സ്ക്രീൻ മുഖത്തിടുന്നത് നല്ലതാണ് കാരണം നമ്മുടെ മുഖത്തിന് ഒരു ഫ്രെഷ്നെസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി സമയ സമയങ്ങലിൽ പുറത്തിറങ്ങുമ്പോൾ മഞ്ഞുള്ള തണുപ്പത്ത് തൊപ്പികൾ യൂസ് ചെയ്യുക ആശയ വിനിമയങ്ങൾ പൂർണ്ണമായി ചാർജ്ജ് ചെയ്ത സെൽ ഫോണും പോർട്ടബിൾ ചാർജ്ജറും എന്നു വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജി പി എസ് ഇടുന്നതാണ് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് വിളിക്കാനോ അതുപോലെ പൈസകൾ ട്രാൻസ്ഫർ ചെയ്യാനോ നമുക്ക് സ്മാർട്ട് ഫോൺ അത്യാവശ്യമാണ് അപ്പതിൽ ചാർജ്ജ് ഫുള്ളാക്കി വെക്കുക അതേപോലെ തന്നെ ഒരു പവർ ബാങ്ക് അങ്ങനെ എന്തെങ്കിലും കയ്യിൽ സുരക്ഷിതമായി വെക്കേണ്ടതാണ് പണവും ഐഡൻറ്റിഫിക്കേഷനും കുറച്ച് പണവും നിങ്ങളുടെ ഐ ഡിയും ആവശ്യമായ രേഖകളും കരുതുക എന്നു വെച്ചാൽ നമുക്ക് അത്യാവശ്യമായി കുറച്ച് കാശ് എന്തായാലും അധികം കയ്യിൽ കരുതേണ്ടതാണ് പോരാത്തതിന് നമ്മളുടെ ഐ ഡി ഒരു റൂമെടുക്കുമ്പോൾ നമ്മളുടെ ഐ ഡി ചോദിക്കും അതേപോലെ വണ്ടീമ്മേ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ലൈസൻസ് ഐ ഡികളും അതുപോലെ കാശുകളും നിർബന്ധമായി കയ്യിൽ വെക്കേണ്ടതാണ് ബൈക്കിലെ ലൈറ്റ് രാത്രി സമയങ്ങളിൽ മഞ്ഞ് വീഴുന്നതാകുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് കപ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും ഡാർക്കാണ് എന്ന രീതിക്ക് കരുതുക അപ്പം രാത്രിയിൽ കുറഞ്ഞ ദൃശ്യ പരിധിയിലോ സവാരി ചെയ്യുന്നതിനുള്ള മുൻവശത്തും പിന്നിലും ലൈറ്റുകളും നല്ല രീതിയിൽ കത്തിക്കേണ്ടതാണ് പിന്നെ ക്യമ്പിങ്ങ് ഗിയർ എന്താ പറയുക ടെൻറ്റ് സ്ലീപ്പിങ്ങ് ബാഗ് ക്യാമ്പ് സ്റ്റൗ രാത്രി തങ്ങാനുള്ള ഭക്ഷണം ഇപ്പോൾ ഓരോ ചില സീസണുകളിൽ നമുക്കൊരു കാരണവശാലും റൂമുകൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പം നമ്മൾ എപ്പം പോകുമ്പോഴും വല്ല ടെൻറ്റോ അല്ലെങ്കിൽ ക്യാമ്പസ് എന്തെങ്കിലും നമുക്കിങ്ങനെ തങ്ങാൻ പറ്റിയ എന്തെങ്കിലും നല്ല സേഫായിട്ടുള്ളൊരു ടെൻറ്റ് പോൽത്തത് കയ്യിൽ വെക്കുക പിന്നെ ക്യാമ്പ് സ്റ്റൗ ഈ ചെറിയ സ്റ്റൗ പോലത്തൊക്കെ കിട്ടും അങ്ങനത്തതൊക്കെ എപ്പോഴും കയ്യിൽ കരുത്തേണ്ടതാണ് പിന്നെ റിപ്പയർ അറിവ് നമുക്ക് ബേസെങ്കിലും വണ്ടീനെ കുറിച്ചെന്തെങ്കിലും അറിഞ്ഞിരിക്കണം കാരണം റോട്ടിൽ പൊതുവായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന ബൈക്ക് റിപ്പയർ കഴിവുകൾ നമ്മളെങ്ങനെ അറിഞ്ഞിരിക്കുക കാരണമെന്താ വെച്ചാൽ ചെറിയൊരു എന്തെങ്കിലും ബൈക്കിന് അപകട ഇപ്പം രാത്രി ആണെങ്കിൽ നമുക്കൊന്നും ഇപ്പോൾ റിപ്പയറിന് കിട്ടിയെന്ന് വരില്ല പക്ഷേ ചെറിയ ബേസ് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ ബൈക്ക് അസന്തുലിത അസന്തുലിതമാക്കുന്നത് ഒഴിവാക്കാൻ എല്ലാം സുരക്ഷിതമായി പാക്ക് ചെയ്തിട്ടുണ്ടെന്നും തുല്യമായി വിതരണം ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു ഉറപ്പാക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ യാത്രയുടെ ദൈർഘ്യത പരിഗണിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ എന്തെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മളെന്താ ചെയ്യുക അതിൽ പ്ലാൻ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക ഇപ്പം നമ്മളൊരു ഇന്ന സാധനങ്ങൾ ഇല്ലെന്നറിഞ്ഞാൽ നമ്മൾ ഇന്ന സ്ഥലത്തേക്കുള്ള പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് വേറെ എവിടേക്കെങ്കിലും ആക്കുകാ അങ്ങനെ എല്ലാവരും പിന്നെ ഈ രാത്രികളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക നല്ല ഫ്രഷ്നെസാണ് നമ്മുടെ മൈൻഡിന് കിട്ടുക അപ്പം എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യാത്രയിലൂടെ എന്തു ചെയ്യുക നമുക്കെല്ലാം അത് പോയി കിട്ടും അപ്പോൾ യാത്രകൾ ചെയ്യുക അത് മനസ്സിനെയും രോഗങ്ങളെയും എല്ലാറ്റിനും എന്തു ചെയ്യും നമ്മുടെ സംരക്ഷിക്കും എല്ലാവരും യാത്ര ചെയ്യുക പിന്നെ ബൈക്കിങ്ങ് യാത്രയൊക്കെയുണ്ടെങ്കിൽ തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം സാധനങ്ങളും വെള്ളം പാക്കെല്ലാം കാര്യങ്ങളും കയ്യിൽ കരുതി നല്ല പോലെ പോയ പോയിട്ട് വരണം